ആ ഹലോ ഫ്രെഡി സാറല്ലേ ആ ഞാൻ രാഹുലിൻ്റെ ഫാദറായിരുന്നു ആ ആ ആ ആ സാർ അവൻ്റെ മാർക്കൊക്കെ എങ്ങനെയുണ്ടെന്നറിയാന് വേണ്ടി വിളിച്ചതാണ്

ആണോ സാർ മാത്സല്ലേ ആ സാർ അറിയില്ല ആണോ സാർ വീട്ടില് വന്നുകഴിഞ്ഞാല് ഒട്ടും പഠിക്കാറില്ല സാർ ഞാൻ ഞങ്ങള് പറയാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് പിള്ളാരായിപ്പോയില്ലേ അടിക്കാനൊന്നും പറ്റില്ലല്ലോ ഒത്തിരി എൻ്റെ പേര് അഭിനവ് ഞാൻ ഡോക്ടറാണ് ആണ് സാർ ആ വീട്ടില് വരവും കുറവാണ് പിന്നെ വൈഫിനാണെങ്കിലും പറ്റില്ല അവൾക്കും ജോലിയുണ്ട് അപ്പോള് അങ്ങനെ ശ്രദ്ധിക്കാന് വേണ്ടി വൈഫ് ഇപ്പോള് പ്രൊഫസറാണ് ആണ് രാവിലെ അവനൊറ്റയ്ക്കായിരിക്കും അവനെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതെ അതെ പിന്നെ ഒറ്റമോനും കൂടിയാണല്ലോ ആ ഇനി ആ ആ ഇനി ശ്രദ്ധിക്കാം ആണല്ലേ ആ ഇനി ശ്രദ്ധിച്ചുകൊള്ളാം സാർ ആ ഓക്കെ സാർ ആ ഉണ്ടല്ലേ ആ ആ അ അവന് ഏറ്റവും വീക്ക് ഏതിലാണ് സാർ ഹലോ അവന് ഏറ്റവും വീക്ക് സബ്ജെക്റ്റ് ഏതാണ് ആണല്ലേ ആണല്ലേ ആ ഇനി ഞാനും വൈഫുമൊന്ന് ശ്രദ്ധിക്കാം സാർ അവന് എന്താണ് വേണ്ടതെന്നുവെച്ചാല് ചെയ്തുകൊടുക്കാം അതെ സാർ അതെ

ഓക്കെ സാർ ആ ഓക്കെ സാർ ഓക്കെ ആ ഓക്കെ ഓ ഓക്കെ സാർ ആ അതെ സാർ

ആ ഓക്കെ ഓക്കെ ഇനി ശ്രദ്ധിച്ചുകൊള്ളാം സാർ ഓ അതെ സാർ ഓക്കെ ഓക്കെ സാർ ഇനിയെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് വിളിക്കാമോ വിളിച്ചേക്കാം കേട്ടോ ആ ഓക്കെ സാർ ശരി സാർ താങ്ക് യൂ